ഹലോ ഗായ്സ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ കല്ലൂർ സ്റ്റേഡിയത്തെക്കുറിച്ചിട്ടാണ് ഈ കല്ലൂർ സ്റ്റേഡിയത്തില് നമുക്ക് പറയണത് കല്ലൂർ സ്റ്റേഡിയത്തില് എൺപതിനായിരം പേർക്ക് തോളം ആൾക്കാർക്കും അത് കേറാനും ഇരിക്കാനും കളി കാണാനും പറ്റുന്നത് അതിൽ കൂടെ നമുക്ക് ഈ കല്ലൂർ സ്റ്റേഡിയത്തില് കല്ലൂർ സ്റ്റേഡിയത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതല് ഫൂട്ബോൾ കളിയാ ഫുട്ബോൾ മത്സരങ്ങൾ ആണ് ഞാൻ കണ്ടിരിക്കുന്നത് മിനിഞ്ഞാന്ന് ഐ എസ് എൽ സ്റ്റാർട്ടിങ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും പിന്നെ മുൻ എതിരാളിയായ ബാംഗ്ലൂർ എഫ് സിക്കാരുടെ ഒപ്പമായിരുന്നു അതിൽ കേരളം രണ്ട് ഒന്നിനാണ് ബാംഗ്ലൂരിനെ തൂറ്റിച്ച് പൊട്ടിച്ചു വൻ ജയമായിരുന്നു അതിൽ നമുക്കറിയാം ഈ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഏറ്റവും ആൾക്കാർ കാണുന്നത് നമ്മുടെ കേരളത്തിന്റെ കളിയാണ് ഈ കേരളത്തിന്റെ കളിയിൽ ഇവിടുത്തെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുകാരുടെ ഏറ്റവും കൂടുതൽ കളികളാണ് അപ്പോൾ നമുക്ക് അറിയാം ഈ കേരളത്തിന്റെ കളികളിൽ അന്ന് അന്ന് കണ്ട കളിയിൽ ഏറ്റവും ഏറ്റവും ഏറ്റവും നല്ല കളിയായിരുന്നു കേരളത്തിന്റെ കളി അപ്പോൾ നമുക്കും കാണാൻ കേരളത്തിലെ കളികൾ ഈ ഇങ്ങനത്തെ കളികളാണ് അപ്പോൾ നമുക്ക് അറിയാം കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇങ്ങനെയും നമ്മുടെ അതും നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ കളികൾ കേരളത്തിൽ നടക്കുമോ എന്നാണ് നമ്മുടെ സംശയം നമ്മുടെ ചോദ്യം അപ്പോൾ ഞാൻ കളി കാണാൻ പോയപ്പോൾ എനിക്ക് ആ കളി എന്താണെന്ന് അപ്പോൾ മനസ്സിലായി അപ്പോൾ അതാണ് നമ്മള് പറയണത് നമ്മടെ കേരളത്തിലും ഇങ്ങനെ ഒരു കല്ലൂർ സ്റ്റേഡിയം ഉണ്ട് പറയാം അപ്പോൾ ഞാനും പറയുകയാണ് കല്ലൂർ സ്റ്റേഡിയം ഈ ലോകത്തെ ഏറ്റവും വല്ലിയൊരു സ്റ്റേഡിയമായി മാറും എന്ന് ഞങ്ങൾ പറയുന്നതാണ് അതിലൂടെ നമുക്കും പറയാം കല്ലൂർ സ്റ്റേഡിയം ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയമാണ്